ഞങ്ങളുടെ നാട്ടില് ടൂറിസ്റ്റ് സീസണ് ആയിട്ട് പരിഗണിക്കാവുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആയിരിക്കും കാരണം ഓഗസ്റ്റ് സെപ്റ്റംബര് മാസം ഇവിടെ കാലാവസ്ഥ ഒരുമാതിരി അനുകൂലമായിരിക്കും പിന്നെ ഇതൊരു കാര്ഷിക ഗ്രാമമാണ് കാര്ഷിക ഗ്രാമമെന്ന നിലയില് വിളവെടുപ്പിന്റെ സമയം ആയിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബര് മാസം ഈ പറഞ്ഞ സമയത്ത് തന്നായിരിക്കും ഓണം വരുന്നത് ഓണം വരുമ്പോള് കൂടുതല് നാടന് കലാപരിപാടികള് അതു പോലുള്ള നാടന് കലകളും ഒക്കെ ടൂറിസ്റ്റുകള്ക്ക് ആസ്വദിക്കാന് സാധിക്കും പിന്നെ ഈ നാടിന്റെ വേറൊരു പ്രത്യേകതയാണ് അവിടത്തെ വള്ളം കളി കളിവള്ളങ്ങളുടെ കളി കാണാനും ടൂറിസ്റ്റുകള്ക്ക് സാധിക്കും അപ്പോള് വര്ഷത്തില് ഓഗസ്റ്റ് സെപ്റ്റംബര് മാസമായിരിക്കും ടൂറിസ്റ്റുകള്ക്ക് ഈ നാട്ടില് വരാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം ഒന്നാമത്തെ കാര്യം കാലാവസ്ഥ രണ്ട് നാടിനെ അറിയാന് സാധിക്കും നാടിനെ അറിയുക എന്നുവച്ചാല് ഇവിടെ കാര്ഷിക ഗ്രാമമായതുകൊണ്ട് വിളവെടുപ്പ് സമയമായിരിക്കും അപ്പോള് അതുപോലെയുള്ള പ്രോസസ്സുകൾ ഒക്കെ കാണാനായിട്ട് സാധിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ വള്ളംകളി വള്ളംകളി അതുപോലുള്ള കലാ കായിക പരിപാടികളൊക്കെ അവർക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ നാട്ടില് കൂടുതലും പ്രവാസികൾ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ഈ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ചാണ് കൂടുതലും ആള്ക്കാര് നാട്ടില് തിരിച്ചെത്തുന്നതും ആ സമയത്ത് നാടിനെ കുറിച്ച് കൂടുതല് പുറത്തുനിന്നു വരുന്ന ഒരാള്ക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബര് മാസമായിരിക്കും ഞങ്ങളെ നാടിനെ സംബന്ധിച്ച് ഒരു ടൂറിസ്റ്റ് സീസൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്